ഹലോ ഹലോ അതെ സാർ എൻ്റെ പേര് അഞ്ചൂന്നാണ് ഞാൻ കണ്ണൂരുന്ന് വിളിക്കുന്നെയാണ് അനക്ക് അനക്ക് ഫുട്ബോള് പഠിക്കണമായിരുന്നു സാർ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളെ കോച്ചിംഗിൻ്റെ എല്ലാം വിവരം സമയം എല്ലാം എങ്ങനെയാണ് അറിയാൻ വേണ്ടീട്ട് വിളിച്ചതേനു എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ഞാൻ ഇപ്പോൾ പത്താം ക്ലാസ്സ് കഴിഞ്ഞു പത്താം ക്ലാസ്സ് കഴിഞ്ഞതാണ് അപ്പോൾ അനക്ക് ഫുട്ബോള് പഠിക്കണമെന്ന് പണ്ടേ ഒരാഗ്രഹം ഉണ്ട് അപ്പോ അനക്ക് അതിന് ചേരാൻ വേണ്ടീട്ട് ഞാൻ വിളിക്കുന്നതാണ് എങ്ങനെയാണ് സമയം എങ്ങനെയാണ് എല്ലാം പറഞ്ഞ് തന്നാൽ അതിന് ചേരാൻ വേണ്ടീട്ടേനു എത്ര മണി

ആ ആ ഓക്കെ ആ ആ ആ വൈകുന്നേരം ആറ് അര മുതൽ എട്ട് മണി വരെ അല്ലേ

പിന്ന ഇല്ല ഞാൻ പത്താം ക്ലാസ്സ് കഴിഞ്ഞു പരീക്ഷ ആ പരീക്ഷ എഴുതിയിട്ട് നിൽക്കുന്നാണ് അനക്ക് ഏത് സമയം ആയാലും പ്രശ്നം ഇല്ല അപ്പോൾ അനക്ക് രാവിലെ ആ രാവിലത്തെ ബാച്ചിൽ വരാൻ പറ്റീറ്റില്ലെങ്കിൽ വൈകുന്നേരം വന്നാലും പ്രശ്നം ഇല്ലല്ലോ മാഷേ എത്രയാണ് പൈസാന്ന് ഒന്നും പറഞ്ഞിട്ട് ഇല്ലല്ലോ ഒരു മാസം എത്ര പൈസ ആകും പതിനൊന്ന് ആ നാളെ വാ ഞാൻ അച്ഛനെയും കൂട്ടീട്ട് വരാം മാഷേ കാണാൻ വരാം എങ്ങനെ ആണെന്ന് എല്ലാം എന്നാൽ അപ്പോൾ അതെയോ മാഷേ കുറെ കുട്ടികൾ ഉണ്ടാ ഈ നമ്മളുടെ ഈ വാരം സൈഡുന്ന് ആരെങ്കിലും വരുന്നുണ്ടോ

ശരി മാഷേ എന്നാൽ ഞാൻ നാളെ ഇല്ല ഇല്ല എവിടെയാണ് ആ ശരി ശരി സാറ് എന്നാൽ ഞാൻ നാളെ അച്ഛനെയും കൂട്ടീട്ട് വരാം എന്നിട്ട് സാറ് ആ പൈസേൻ്റെ കാര്യം എല്ലാം പറ എന്നിട്ട് ആ വന്നിട്ട് നാളെ ചേ ആ ചേരാം ആ ശരി സാർ താങ്ക് യൂ സാർ